ഞങ്ങളുടെ ഇവിടെ ഗ്രാമങ്ങളിൽ വിവാഹ ആലോചന നടത്തുന്നത് എങ്ങനെയാണെന്ന് വച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ വിവാഹപ്രായം ആയതിനു ശേഷം ആയതിനു ശേഷം അവരുടെ പേരും ഡീറ്റൈൽസും ഫോട്ടോയും കൊടുത്ത് നമ്മൾ ഏതെങ്കിലും ഒരു മാട്രിമോണിയിൽ നമ്മൾ അപ്ലൈ ചെയ്യും അങ്ങനെ മാട്രിമോണിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പല തരത്തിലുള്ള വിവാഹ ആലോചനകളും വന്നു കൊണ്ടിരിക്കും അതെ മാട്രിമോണിയിൽ നിന്നു തന്നെ അപ്പം നമുക്ക് അനിയോജ്യമായി തോന്നി എന്ന് അനിയോജ്യമായ ഒരു വിവാഹ ആലോചന കിട്ടുവാണെങ്കിൽ ആദ്യമേ നമ്മൾ പെണ്ണിനേയും ചെക്കനേയും അതായത് പെൺകുട്ടീനേയും ആൺകുട്ടീനേയും സംസാരിക്കാൻ അനുവദിക്കും സംസാരിച്ചതിന് ശേഷം അവർക്ക് താല്പര്യം എന്ന് കാണുകയാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിക്കും സംസാരിക്കും അവരുടെ വീട്ടുകാര്യങ്ങളും അവരുടെ ജീവിത രീതികളുമൊക്കെ മനസിലാക്കാൻ ശ്രമിക്കും രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നമ്മുടെ കുട്ടിയെ അങ്ങോട്ട് ഇങ്ങോട്ട് ആയാലും പറഞ്ഞുവിട്ട അതൊക്കെ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുമോ എന്നത് ആലോചിക്കും കുടുംബത്തിൽ എല്ലാവർക്കും പെൺകുട്ടിക്കും ആൺകുട്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ വീട്ടു കുടുംബാംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കാഴ്ച്ചകൾ നടത്തും പൊതുവെ അതിന് നമ്മൾ പെണ്ണു പെണ്ണുകാണൽ എന്നാണ് പറയുന്നത് അപ്പം ആൺകുട്ടിയുടെ കുടുംബത്തിലുള്ള തലമൂത്ത കാരണവന്മാരായാലും ആരായാലും നമ്മുടെ പെൺകുട്ടിടെ കുടുംബത്തിൽ വരും കുടുംബത്തിൽ വന്ന് അങ്ങോട്ടുമിങ്ങോട്ടും നമ്മുടെ സന്തോഷങ്ങൾ കൈവരിക്കും അവർ പെണ്ണിൻ്റേയും ചെറുക്കൻ്റേയും കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യും അതിന് ശേഷം അന്നേ ദിവസം തന്നെ പൊതുവായി പെൺകുട്ടിയും ആൺകുട്ടിയും കാരണവന്മാരും അച്ഛനും അമ്മയും കൂടെ പെൺകുട്ടിയുടെ കുടുംബത്തോട്ടാണ് വരാറുള്ളത് അപ്പം പെൺകുട്ടിയുടെ കുടുംബത്തിലായാലും പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും കാരണവന്മാരും ഉണ്ടാവാറുണ്ട് അന്നേ ദിവസം തന്നെ അവർ അവർക്ക് നേരിട്ട് കുറച്ച് അധികനേരം സംസാരിക്കാൻ അവരെ ജീവിതം ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള തീരുമാനങ്ങളെ പറ്റി ഡിസ്ക്കസ്സ് ചെയ്യാനും പ്ലാനിനെ പറ്റി മുന്നോട്ട് അവർ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനെ അവർ അവരുടെ ജീവിതം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് തീരുമാനങ്ങളും പ്ലാനുകളു ഒക്കെ പങ്കുവച്ചതിനു ശേഷം ആകുമ്പോഴത്തേക്കും അവർക്ക് അങ്ങനെ മുന്നോട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചു നമ്മൾ തീരുമാനിക്കാൻ പറ്റും അങ്ങനെയൊരു തീരുമാനം അവർ അവർ ഓക്കെയാണെന്ന് അവർ പറയുന്നു പറയുകയാണെങ്കിൽ മുന്നോട്ട് നമ്മൾ കല്യാണത്തിനും മനസമ്മതത്തിനുമുള്ള കാര്യങ്ങൾ നോക്കും അപ്പം അതിനുശേഷം നമ്മൾ നിച്ഛയം നടത്തും നിച്ഛയ ദിവസം നമ്മൾ പെൺകുട്ടിയുടെ വീട്ടുകാരെല്ലാം കൂടെ ആൺകുട്ടിയുടെ വീട്ടിലോട്ട് ചെല്ലും പെൺകുട്ടി ഒഴികെ പൊതുവെ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിനെ ആദ്യമെ ചെക്കൻ്റെ വീട്ടിലോട്ട് കല്യാണത്തിന് മുമ്പെ കൊണ്ടു പോവാറില്ല ഇപ്പം കാലം മാറിവരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുമുണ്ട് നമ്മൾ പൊതുവെ അങ്ങനെ പോയാലും ഇപ്പം പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കാരണവന്മാരും എല്ലാരുംകൂടെ ചെക്കൻ്റെ വീട്ടിലോട്ട് പോയിട്ട് രണ്ട് പേർക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അതും വിദേശ ദേശത്ത് ആയതുകൊണ്ട് അവരുടെ രണ്ടുപേരുടേയും ലീവൊക്കെ അനുസരിച്ച് അവർക്ക് എന്നാണൊ ലീവ് രണ്ടുകൂട്ടർക്കും ഒരുപോലെ എങ്ങനെയാണോ ലീവ് അവധിയും വെക്കേഷനുമൊക്കെ ഉള്ളത് ബാക്കി കുടുംബങ്ങൾക്ക് എങ്ങനെ എത്താൻ സാധിക്കും അങ്ങനെയൊരു ഡേറ്റ് നോക്കി നമുക്ക് അനുയോജ്യമായ നല്ല തീയതി നോക്കി നമ്മൾ കല്യാണവും മനസമ്മതവും ഡേറ്റ് ഫിക്സ് ചെയ്യും അത് അതിനു ശേഷം ഇവർ രണ്ടുപേരും കല്യാണത്തിനുള്ള ധ്യാനത്തിനും ക്ലാസ്സിനും ഒക്കെ പോവുകയും ഇവർ തമ്മിൽ സംസാരിക്കുകയും അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കുകയും ചെയ്യും ഇവർ ഇരുവരുടേയും സ്വഭാവങ്ങളും കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കും അയിനുശേഷം കല്യാണത്തിനായിട്ട് എല്ലാ ക്ലാസ്സുകളും കോഴ്സുകളൊക്കെ കഴിഞ്ഞ് പതുക്കെ ഞാൻ വന്ന് ലീവിൻ്റെ സമയം ആളുടെ മനസമ്മതത്തിനും കല്യാണത്തിനുമായിട്ടുള്ള ക്രമീകരണങ്ങൾ പതുക്കെ നടത്തി തുടങ്ങും പള്ളിയിൽ നിന്നും മറ്റ് ഹോളുകളൊക്കെ ബുക്ക് ചെയ്യും കല്യാണ വസ്ത്രങ്ങളൊക്കെ ആഭരണങ്ങളൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്യും അതിനുശേഷം ഒരുക്കത്തോടും ഇവരുടെ കല്യാണം നടത്തും കല്യാണവും മനസമ്മതവും നടത്തും മനസമ്മത ദിവസം ഇവരുടെ ഇവർക്ക് തമ്മിൽ തമ്മിൽ കല്യാണം കഴിക്കുവാനായിട്ട് സമ്മതമാണോ എന്ന് ദൈവത്തിൽ അല്ലെങ്കിൽ പള്ളിയുടെ മുന്നിൽ പള്ളിയുടെ മുന്നിൽ വച്ച് അവര് ഏറ്റുപറയും ഇതിന് രണ്ടു സാക്ഷികളായിട്ട് കാരണവന്മാർ നിൽക്കുന്ന അതെ കല്യാണദിവസം അവർ രണ്ടുപേരും ദൈവത്തിൻ്റെ മുന്നിൽ ആൺകുട്ടി പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി വധു വധുവിനെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു